ആ അനാഫാമിൻറെ ഉമ്മയാണല്ലേ പിന്നെ മീറ്റിംഗ് ആ ഹലോ ആ പറയൂ കേൾക്കുന്നില്ലേ ആ നമസ്കാരം ആ ആ പിന്നെ ഇന്നലെ മീറ്റിംഗ് വെച്ചിരുന്നു എന്തേ വന്നിരുന്നില്ല

ആ ആ ആ എല്ലാ സ്കൂളിലും ഇപ്പം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുവായിരിക്കുമല്ലേ

പിന്നെ ആ കുഴപ്പമില്ല ആ ഓവർഓൾ എ ഗ്രേഡ് ഉണ്ട് ക്ലാസ്സിലൊന്നും കുഴപ്പമൊന്നുമില്ല ആ എങ്കിലും കുറച്ച് വർത്തമാനം പറയൽ കൂടുതലുണ്ട് ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആ ആൾ മിടുക്കിയാണ് എല്ലാത്തിലും നല്ല സ്മാർട്ട് ആണ് എല്ലാ ഇതും ചെയ്യും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ആ ആ അതെ അതെ ക്ലാസ്സിൽ അങ്ങനെത്തന്നെയാണ് എന്താണെങ്കിലും ഒന്നും കൂടെ റൈറ്റിങ്ങിലൊക്കെ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ അതേപോലെ വായിക്കുന്നതിൽ എഴുതി വായ് വായിക്കാനും പറയണം പിന്നെ ആ ഓവർഓൾ ഓവർഓൾ എല്ലാത്തിൽ എ ഗ്രേഡ് തന്നെയാണ് കാണുന്നത് ഉം കുഴപ്പമൊന്നുമില്ല

പിന്നെ ഇപ്പം ആനിവേഴ്സറി നടന്നുകൊണ്ടിരിക്കുവാണല്ലോ അത് നടക്കാനുള്ള ടൈം ആയപ്പോൾ അവൾ പ്രാക്റ്റീസ് ചെയ്തേക്കണോ പിന്നെ ഇനി ആ നെക്സ്റ്റ് മന്ത് ആയിട്ടാണ് നെക്സ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് വീക്കിലായിട്ടുണ്ടാവും അതേപോലെ എൽ എസ് എസിന്റെ എക്സാം വരുന്നുണ്ട് അതിന് പഠിപ്പിക്ക പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ ആ ഉണ്ട് ഉണ്ട് ഇനി എക്സാം അടുപ്പിച്ചിട്ട് ഡെയിലി വൈകുന്നേരങ്ങളിൽ ക്ലാസ് വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഗ്രൂപ്പിൽ അറിയിക്കുന്നുണ്ട് ആ മടിയാണ് കഴിക്കാൻ മടിയാണ് പച്ചക്കറികളും ഒക്കെ കഴിക്കാനും മടിയാണ് ആ പറയേണ്ട പിന്നെ അതേപോലെ വെള്ളം കുടിക്കാനും മടിയുണ്ട് ഇപ്പോൾ വേനലല്ലേ വരുന്നത് അപ്പോൾ വെള്ളം എപ്പോഴും ഇടയ്ക്ക് കുടിക്കാൻ പറയണം പിന്നെ വീട്ടിൽ അവളെങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിക്കുവോ ആ ആ ആ ആ എന്നാൽ ഇനി അടുത്ത എക്സാം ആവുമ്പോഴത്തേനൊക്കെ ആ അടുത്ത എക്സാം ആവുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാലേ ടോപ്പ് ആവും ക്ലാസിലെ ടോപ്പ് ടോപ്പ് ആവുന്ന കുട്ടി തന്നെ ആണ് എല്ലാത്തിലും നല്ല സ്മാർട്ട് ആയ കുട്ടിയാണ് അപ്പോൾ ഇന്നെലെ എല്ലാ പേരന്റ്സും വന്നിരുന്നു അപ്പോൾ അനാഫാമിൻറെ മാത്രം വന്നില്ല അപ്പോൾ എന്താണെന്ന് ചോദിച്ചിരുന്നു അവളുടെ അടുത്ത് ഞാൻ

ആ ആ ആ ആ ആ പിന്നെ പാൽ കു പാൽ കൊ ഗ്ലാസ് കൊടുത്തയയ്ക്ക കൊടുത്തയയ്ക്കോണ്ടു ആ ശരി അപ്പാ ആ ആ ആ പിന്നെ വാങ്ങിക്കാറില്ല അപ്പോൾ ഗ്ലാസ് ഗ്രൂപ്പിൽ പറയുമ്പോൾ അത് മറക്കാതെ കൊടുത്ത കൊടുത്തയയ്ക്ക് ആ ആ എന്നാൽ അതായിരിക്കും ആ ആ അവളുടെ അടുത്ത് തന്നെ കഴിക്കാൻ പറയണം എല്ലാവർക്കും ഗവൺമെന്റ് കൊടുക്കുന്നതല്ലേ അപ്പോൾ അത് അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതിന് വേണ്ടിയിട്ടല്ലേ

ആ ഓക്കേ ഓക്കേ ആ അതെ വെര് വരണം ഇനി എന്നാണ് വരിക നാളെ എത്തിയിട്ട് വരാൻ പറ്റുമോ ആ ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എങ്ങാണ്ട് ഉച്ചയ്ക്ക് മുമ്പാവുമ്പോൾ ക്ലാസ് ടൈം ഒക്കെ ആവുമ്പം ഇൻറർവെൽ ടൈം ആവുമല്ലോ ഉച്ച ആവുമ്പോൾ ഫുഡിൻറെ ടൈം അപ്പോൾ ആ ടൈമിൽ വന്നാൽ മതി ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി ആ ഓക്കേ ആ വേറെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്നാൽ നല്ലവണ്ണം അടുത്ത എക്സാം ആകുമ്പോഴേക്കും എഴുതാനും വായിക്കാനൊക്കെ വായിക്കാനൊക്കെ ഒന്നും കൂടെ ഡെയിലി വായിക്കാനും അതേപോലെ ഡയറി എഴുതി കൊണ്ട് വരാനൊക്കെ ഡയറി ഡയറി ഡെയിലി എഴുതാൻ പറയാറുണ്ട് ആ എന്നാലേ ഉള്ളൂ അവർക്ക് എക്സാം ടൈം ആകുമ്പോൾ അവർക്ക് തന്നെ സ്വയം അല്ലാതെ എഴുതാൻ വയ്ക്കുള്ളൂ അപ്പം അതിനാണ് അവരെക്കൊണ്ട് ഡയറി എഴുതാൻ പറയുന്നത് അവരുടെ കാര്യങ്ങൾ തന്നെ ഡെയിലി ചെയ്യുന്നത് ചെയ്യിപ്പിച്ചാൽ മതി അതേപോലെ തന്നെ ഇപ്പം ഇംഗ്ലീഷിനും എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹെഡ് ഹെഡ്മിസ് അപ്പം ഇംഗ്ലീഷിലുള്ള ലാംഗ്വേജ് നമുക്കത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിലും നമ്മളൊരു പേജിൽ മലയാളത്തിലും എഴുതുമ്പോൾ അടുത്ത പേജിൽ ഇംഗ്ലീഷിലും എഴുതിപ്പിക്കുക ഫസ്റ്റിൽ ഒന്നോ രണ്ടോ സെൻറൻസ് ഒക്കെ എഴുതിയാൽ മതി ഇംഗ്ലീഷിലാവുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മലയാളം എഴുതുന്നത് പോലെ തന്നെ ഒരു അര പേജ് ഒക്കെ ഇംഗ്ലീഷിൽ നമുക്ക് എഴുതാൻ കഴിയും ഇനിയിപ്പം അവർ എഴുതുന്നത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല അത് എഴുതി കൊണ്ടുവന്നോട്ടെ നിങ്ങൾ പേരന്റ്സ് പറഞ്ഞുകൊടുക്കുന്നത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല ആ തെറ്റ് നമുക്ക് പറഞ്ഞ് തിരുത്തിക്കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാവുമല്ലോ പേരന്റ്സിന് മനസ്സിലാവും കുട്ടിക്കും മനസ്സിലാവും എന്താണ് തെറ്റ് എന്നുള്ളത് ഓക്കേ ആ അപ്പം എന്നാൽ നാളെ സ സൈൻ ചെയ്യാൻ നാളെ വരൂ ആ ഓക്കേ എന്നാൽ ഉം ഉം